ആ ഡെലിവറി ബോയല്ലേ ആ ഞാൻ വിളിച്ചതെന്നുപറഞ്ഞാല് ഇന്ന് കൃത്യ സമയത്ത് ഡെലിവറി കിട്ടി കേട്ടാ അത് നമ്മുടെയാ പയ്യനുണ്ടല്ലോ രാഹുല് അവൻ കൃത്യ സമയത്ത് കൊണ്ടുത്തന്ന് ഓഡര് കൃത്യമായിട്ട് കൊണ്ടുത്തന്ന് നന്നായിരുന്നു ഇന്ന് പിന്നെ ഫുഡും ഒരുപാട് തണുത്തുപോയില്ല സാധാരണയീ ഓഡറേത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കൊണ്ടുവരുമ്പോള് ഫുഡ് തണുത്ത് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് ഓഡറേതൊരു അര മണിക്കൂറിന് ഉള്ളില് തന്നെ കൊണ്ടുവന്ന് അപ്പോള് പിന്നാ ന ഫുഡ് നല്ല ചൂടോടെയിരുന്നു അതുകൊണ്ട് കഴിക്കാൻ കൊള്ളാമായിരുന്നു അപ്പോള് എന്തായാലും ഇതുപോലെ തന്നെ ഇനീ ഡെലിവറി ചെയ്യുമെന്ന് ഞാന് പ്രതീഷിക്കണ്